കേരളത്തിലെ സ്പോർട്സ് മേഖലയിൽ ഉത്തേജക മരുന്നിൻറെ ഉപയോഗം വളരെ കൂടുതലാണെന്ന് തന്നെ പറയാം ഇൻഡയറക്ടായിട്ട് ചിന്തിക്കുവാണെന്നുണ്ടെങ്കിൽ ഉണ്ടെന്ന് തന്നെ പറയാം കാരണം അത് എല്ലാവരും ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ആ ഒരു സെക്ഷനിൽ ഉള്ളവർക്ക് അറിയാൻ സാധിക്കും ഇപ്പോൾ ലഹരിമരുന്നിൻ്റെ ഉപയോഗം കേരളത്തിൽ വർദ്ധിച്ചു വരുകയാണ് അതുപോലെതന്നെ സ്പോർട്സ് മേഖലയിൽ ഉത്തേജകമരുന്ന് ഉപയോഗിക്കാതെ ചെയ്യാനായിട്ടുള്ള ഒരു എന്താ പറയാ അതില്ലാതെ പറ്റത്തില്ലാത്തൊരു അവസ്ഥയിലോട്ടെന്ന് തന്നെ വേണേൽ നമുക്ക് പറയാൻ സാധിക്കും വേണ്ടപ്പെട്ട അധികാരികൾ ഇതിനെപ്പറ്റി ചിന്തിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചിന്തിക്കുക അല്ലെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി ഒരു സ്റ്റഡി ചെയ്തിട്ട് അതിനുവേണ്ടി ഒരു ബോധവത്കരണം കാരണം ക്ലാസ്സ് കാര്യങ്ങളെല്ലാം ക്രമീകരിക്കേം ചെയ്യേണ്ടതുമാണ് അതിൻ്റെ ഈ ബോധവത്കരണത്തിൻ്റെ കുറവുകൊണ്ടുതന്നെയാണ് അതിൻ്റെ അല്ലെന്നുണ്ടെങ്കിൽ ഈ മരുന്ന് ഉപയോഗിക്കുന്നതിൻ്റെ ദൂഷ്യ ഫലങ്ങൾ എന്താണെന്ന് ഉപയോഗിക്കുന്നവർക്ക് അറിയാൻ പാടില്ല അവർക്ക് അതിനുവേണ്ട ഒരു ക്ലാസ് കാര്യങ്ങൾ എല്ലാം എടുക്കണം ബോധവത്കരണം തീർച്ചയായിട്ടും എടുക്കേണ്ട ഒരു കാര്യം തന്നെയാണ്